നീന്തലിനെക്കുറിച്ച് പറയാനാണെങ്കിൽ കുറെ ഉണ്ട് പറഞ്ഞാലും തീരത്തില്ല എന്താണെന്നു ചോദിച്ചാൽ ഇപ്പോൾ നീന്തലെന്നു പറയുന്നത് നമ്മൾ എല്ലാവരും നമ്മൾ എന്താ പഠിക്കേണ്ട ഒരു കാര്യമാണ് നീന്തലെന്നു പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഇപ്പോൾ നമുക്ക് മറ്റുള്ളവരെ ഇപ്പോൾ പുഴയിലോ അങ്ങനെ എവിടെയെങ്കിലും വീണാൽ അവർക്ക് നീന്തൽ അറിയുമെങ്കിൽ നമുക്ക് നമുക്ക് അവരെ സഹായിക്കാൻ പറ്റും എന്താണെന്ന് ചോദിച്ചാൽ ഇപ്പോൾ നീന്തലെന്നു പറയുന്നത് അത്ര നല്ല നമ്മൾ മറ്റുള്ളവരെ നമുക്ക് മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യാനും നീന്തലിലൂടെ നമുക്ക് പറ്റും നീന്തൽ നമ്മൾ എല്ലാവരും പഠിച്ച് വയ്ക്കേണ്ട ഒന്നാണ് എന്താണെന്നു ചോദിച്ചാൽ പുഴകളുടെ അടുത്തൊക്കെ താമസിക്കുന്നവർ എന്തായാലും സ്വയരക്ഷയ്ക്ക് വേണ്ടി പഠിക്കേണ്ടതാണ് നീന്തലെന്നു പറയുന്നത് പിന്നെ ക്രിക്കറ്റിനെക്കുറിച്ച് പറയാണെങ്കിൽ ക്രിക്കറ്റ് നല്ലൊരു കളിയാണ് നമ്മുടെ ആൺകുട്ടികളാണ് കൂടുതലും കളിക്കുന്നത് ചെറുപ്പം മുതലേ കളിച്ച് കളിച്ച് കൂടുതലും ഫാൻ ആയി മാറുകയാണ് ഈ ക്രിക്കറ്റ് എന്ന കളി കളിയിലൂടെ ഇപ്പോൾ സച്ചിൻ സച്ചിൻ ടെൻഡുൽക്കറിനെക്കുറിച്ച് പറയാനാണെങ്കിൽ കുറേയുണ്ട് പറഞ്ഞാലും തീരത്തില്ല അതുപോലെ തന്നെ എന്താ ക്രിക്കറ്റ് എന്നു പറയുന്നത് ഇപ്പോൾ ഓരോ നമ്മുടെ കേരളത്തിലും പുറത്തേയ്ക്കും എല്ലായിടത്തും വലിയൊരു കോമ്പറ്റീഷൻ ആയി മാറിക്കൊണ്ടിരിക്കുകയാണ് ക്രിക്കറ്റ് എന്നു പറയുന്ന കളി ഇപ്പോൾ ക്രിക്കറ്റ് ഇപ്പോൾ ആൺകുട്ടികളല്ലാതെ തന്നെ പെൺകുട്ടികളും കളിക്കുന്ന ഒന്നാണ് ഇപ്പോൾ നമ്മുടെ വീടുകളിലും ഇപ്പോൾ ഓരോ ഗ്രൗണ്ടുകളിലും എല്ലാം ക്രിക്കറ്റ് കളിക്കുന്നതും കാണാം ക്രിക്കറ്റ് എന്നു പറയുന്നത് നല്ലൊരു കളിയാണ്